ഇപ്പം കർഷകോൽപ്പനങ്ങൾ നമുക്ക് കടത്തണമെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് കൃഷി ചെയ്ത് അത് മറ്റ് സ്ഥലത്തേക്ക് കൊണ്ടാ അല്ലെങ്കിൽ നമുക്കത് വിതരണം ചെയ്യണമെങ്കിൽ നമ്മളത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം അതിനിപ്പോൾ പല ഗതാഗത മാർഗങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് നമുക്ക് എന്താ ഏറ് ആകാശത്തുകൂടെ നമുക്ക് കടത്താൻ പറ്റും കടലിൽക്കൂടെ കടത്താൻ പറ്റും റോഡ് വഴി കടത്താൻ പറ്റും അങ്ങനെ പല വഴികളുണ്ട് അപ്പം നമ്മൾ മെയിന് ആയിട്ട് നമ്മളിപ്പം നാടുകളിലൊക്കെ ഒരു വണ്ടിയിൽനിന്ന് മറ്റേ സ്ഥത്തേക്കല്ലേ കടത്തുക ഒരു സ്ഥലത്ത് മറ്റേ സ്ഥത്തേക്ക് മെയിന് ആയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി നമ്മള് വണ്ടിയാണ് മെയിന് ആയിട്ട് ഗതാഗത മാർഗ്ഗം നമ്മൾ റോഡ് നമ്മൾ റോഡ് ആണ് മെയിന് ആയിട്ട് ഉപയോഗിക്കുന്നത് വണ്ടിയിൽനിന്ന് നമ്മൾ സാധനങ്ങളിപ്പോൾ ഇപ്പം ഒരു സ്ഥലത്ത് ഒരു ഉള്ളേരിയയിൽ കൃഷി ചെയ്തിട്ട് അത് പുറത്ത് ഇതിപ്പം ചന്തയിൽ എത്തിച്ചാലൊക്കെ അത് വിറ്റ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മളെത്തണം അവിടെ എത്തണം അതിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റോഡ് വഴിയല്ലേ അങ്ങനെയാണ് അപ്പോൾ ഈ റോഡ് വഴിയൊക്കെ കുറച്ചുംകൂടെ രീതിക്ക് നല്ല രീതിക്ക് ഇതാക്കുകയൊക്കെയാണെങ്കിൽ നമുക്ക് ഈ ഉൽപ്പന്നം കുറച്ചുകൂടെ മെച്ചപ്പെടും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗതാഗതം ഒക്കെ കുറച്ചുകൂടെ പുഃസ്ഥാപിക്കുകയാണെങ്കിൽ അതുപോലെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടന്നൊക്കെ മറ്റുള്ളവരിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെ എത്താൻ നല്ല എളുപ്പമായിരിക്കും